ആ പിന്നെ രണ്ട് ഡോക്ടർ ആണോ ആ രണ്ട് ദിവസമായിട്ട് തലവേദന പനിയും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത് ഞാനൊരു ജോലി വെളിയിലാണ് ആ വണ്ടിയിലാണ് പുറത്തുനിന്നാണ് കൂടുതലൊരു എൺപത് ശതമാനം പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ വൈകിട്ടത്തെ ഒരു തലവേദന ഒരു തൊണ്ട അടപ്പ് ബുദ്ധിമുട്ട് അത് ഇതേപോലെ അങ്ങനെ ഇതില്ല കാര്യമായിട്ടൊന്നും ഇല്ല ചില സമയത്തൊരു ഇത് മാതിരി ഇങ്ങനെ പനിക്കാൻ വരുന്നത് മാതിരി ഇങ്ങനെ കണ്ണിൽ കൂടെ ഒരു ചൂടൊക്കെ വന്ന് ഇങ്ങനെ ഒരു മേല് വേദനയുണ്ട് ചെറുതായിട്ട് നല്ല വേദനയല്ല ചെറിയൊരു വേദനയുള്ളൂ ഗ്യാസ് ആണ് ഇല്ല ഞാൻ ഓ വരാ വരുന്നതിനും നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും ഇല്ല പിന്നെ

കാല് വേദന ഇല്ല നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന അതിൻറകത്തുള്ളൊരു മസിൽ പെയിൻ ഒക്കെ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ ആ അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല ബാസെ ആ ഡ്രൈവ് തന്നെ പിന്നെ ക്ലാസ് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ